കേരള വിനോദ സഞ്ചാര വ്യവസായത്തിൽ കലയുടെയും കരകൗശലത്തിൻ്റെയും പങ്ക് ഒരു വലിയ പങ്ക് തന്നെയാണ് അതിപ്പോൾ ചിത്രങ്ങളായാലും ശരി നൃത്ത നൃത്യങ്ങൾ തുടങ്ങിയ കലകളായാലും ശരി ശില്പങ്ങളായാലും ശരി പലതരം കെട്ടിടങ്ങളായാലും ശരി നമ്മുടെ വിനോദസഞ്ചാര മേഖലയെ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മിക്ക സ്ഥലങ്ങളും ഇതുപോലെ എന്തെങ്കിലും കലയുടെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കൊല്ലം ഭാഗത്തുള്ള ജടായിപ്പാറ അത് അവിടെ ഒരു ജടായുൻ്റെ ജടായുൻ്റെ വലിയ ഒരു ശില്പം അവിടെ കൊത്തി വച്ചിട്ടുണ്ട് അത് കാണാനായിട്ട് ഒട്ടനവധി വിദേശികളും പലവിധ വിനോദസഞ്ചാരികളും ആണ് എന്നും അവിടെ എത്തിച്ചേരുന്നത് അതുപോലെ തന്നെ നമ്മുടെ കലകളായ മോഹിനിയാട്ടം അങ്ങനെ പല നൃത്ത നൃത്ത്യങ്ങൾ അല്ലെങ്കിൽ കഥകളി ഇതെല്ലാം കാണാനൊക്കെ ആയിട്ടും ഒരുപാട് വിനോദസഞ്ചാരികൾ എപ്പോഴും എത്തിച്ചേരുന്നതാണ് അതുപോലെ തൃശ്ശൂർ പൂരം തൃശൂർ പൂരത്തിൻ്റെ സമയത്ത് എക്സിബിഷൻ ഉണ്ടാകും ആ എക്സിബിഷന് ലോകമെമ്പാടും നിന്നുമുള്ള പല കലാകാരന്മാരും അവരുടെ കലാസൃഷ്ടിയും അവരുടെ കരകൗശല വസ്തുക്കളുമായി അവിടെ അത് വിൽപ്പനയ്ക്ക് കൊണ്ടുവരാനായി എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇതിനെല്ലാമായി ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്നതാണ് അങ്ങനെ നമ്മുടെ വിനോദസഞ്ചാര മേഖലയിൽ വലിയ ഒരു പങ്കു തന്നെയാണ് കലയും കരകൗശലങ്ങളും എല്ലാം വയ്ക്കുന്നത്